നമ്മളെ കേരളത്തിലെ സാമൂഹ്യ വാർത്ത സ മാധ്യമങ്ങൾ സാമൂഹികമായ രീതിയിൽ ചാനൽ ചർച്ചകളിലൂടെ നമ്മുടെ സഭയെ അവഹേളിക്കുന്ന രീതിയിൽ ചർച്ചകളും ചെറിയ ചെറിയ സംഭവങ്ങളുണ്ടായി കഴിഞ്ഞാൽ അതിനെ കീറി ചർച്ചകളിലൂടെയും നീട്ടി വലിച്ചു കൂട്ടി ആഴ്ചകളും മാസങ്ങളും നീട്ടിക്കൊണ്ട് നമ്മളെ തേജോവധം ചെയ്യുന്ന രീതിയിൽ ചർച്ചകൾ കൊണ്ട് പോവുകയും അങ്ങനെ തന്നെ സാമൂഹ്യ നമ്മുടെ മതത്തിൻ്റെ അല്ലെങ്കിൽ തന്നെ ഒരു വ്യക്തീടെ ആണേൽ തന്നെ ഇല്ലാത്ത കാര്യങ്ങൾ വലുതാക്കി പെരുപ്പിച്ച് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് മാധ്യമങ്ങളിലൂടെ അവഹേളിക്കുന്ന തരത്തിലുള്ള ചർച്ചകളും നമ്മൾ ഏത് ചാനല് തുറന്നാലും ചില സമയത്തൊരു ഒരു വിഷയമുണ്ടായി കഴിഞ്ഞാൽ അതിനെ പറ്റി തന്നെ ചർച്ച നടത്തിക്കൊണ്ട് എവിടെ നോക്കിയാലും അതേ കാണത്തുള്ളു അത് തന്നെ പിന്നേം പറയും നമ്മൾ തന്നെ ഒരു മുശിച്ചിൽ വരുന്ന രീതിയിൽ സംസാരിക്കുന്ന അവസ്ഥയുണ്ടാവും അത്പോലെ നമ്മളുടെ ഈ ഇത്പോലെ തന്നെ ഈ മാധ്യമ ചർച്ചകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒരു നല്ല വാർത്ത കണ്ടോണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ചാനലിൽ ചർച്ച വരുന്നത് എവിടെ ഏത് ചാനല് മാറ്റിയാലും ഇത് തന്നെ നമുക്ക് കാണാം ഒരു അത് നമ്മുടെ നമ്മുടെ മനസ്സിനെ ആടി ഉലപ്പിച്ച് അവർക്കെപ്പോഴും ചാനലിലൂടെ അവരുടെ റേ അതിൻ്റെ റേറ്റ് റേയ്റ്റ് കൂട്ടുവാൻ വേണ്ടി അങ്ങനുള്ള ചർച്ചകൾ നടത്തി മറ്റുള്ളവരെ അവഹേളിക്കുന്ന തരത്തിൽ സാധാരണ നമ്മളുടെ എറണാകുളം അങ്കമാലി രൂപതയുടെ ചർച്ചകളുണ്ട് എത്രയോ നാളുകൾ നമ്മളെ ഇതിലൂടെ തേജോവദം ചെയ്തു വന്ന് കഴിഞ്ഞ് മറ്റു കാര്യങ്ങളൊന്നുമില്ലാതെ ഇതുപോലെ തന്നെ നമുക്ക് പിതാക്കന്മാരേയും അച്ഛന്മാരേയും കന്യാസ്ത്രീകളെയും തേജോവധം ചെയ്യുന്ന ആ പ്രവണത അവസാനിപ്പിക്കുവാൻ നമ്മൾ ഇങ്ങനുള്ള സംഗതികൾ വരുമ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ വാട്സാപ്പുകളിലൂടെ മെസ്സേജ് വരുന്നു അതൊക്കെ നമ്മൾ ഫോർവേഡ് ചെയ്യാതെ അന്നേരം തന്നെ കട്ട് ചെയ്ത് കളയണം അതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത് ഇങ്ങനെയുള്ള ജാതി ചർച്ച വരുമ്പോഴും നമുക്ക് ഇങ്ങനുള്ള സംഗതി തെറ്റുകൾ വരുമ്പം അന്നേരം കട്ട് ചെയ്യുക അടുത്ത പരിപാടിയിലേക്ക് പോവുക ഇവരാരേം വിജയിപ്പിക്കാതിരിക്കുക ഇത്ങ്ങനെ അവർക്കൊരു പബ്ലിസിറ്റി കൊടുക്കാതിരിക്കുക അതൊക്കെ നമ്മളെക്കൊണ്ട് ചെയ്യാനുള്ളു അവരുടെ ഈ കാര്യങ്ങൾ വളരെ നല്ല രീതി കൊണ്ട് പോകുന്ന ചില ചർച്ചകളുണ്ട് ആ ചർച്ചകൾ നമ്മൾ കേൾക്കുക അതുപോലെ തന്നെ ഈ കൃഷിയെ പറ്റിയും പരിസ്ഥിതിയെ പറ്റിയും അങ്ങനുള്ള സാമൂഹിക സാമ്പത്തിക കാര്യങ്ങളും സ്പോർട്സ് അങ്ങനുള്ളത് ഗെയിംസുകൾ അങ്ങനുള്ളതും അങ്ങനുള്ള നല്ല നല്ല ചർച്ചകൾ നമ്മൾ കേട്ട് നമുക്ക് അതിൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കണം അതുപോലെ തന്നെ സോഷ്യൽ നമ്മുടെ സോഷ്യൽ മീഡിയായിലെ

നമുക്ക് ചങ്ങനാശ്ശേരിയിൽ ഒരു സോഷ്യൽ മീഡിയ വലിയ ഇതുണ്ടല്ലോ അങ്ങനെ മീഡിയായിൽ ഇത്പോലെ പരിപാടികൾ നമ്മൾ കേൾക്കാണമെങ്കിൽ നമുക്ക് ഇച്ചിരൂടെ ആനന്ദകരമായ രീതിയിൽ നമുക്ക് പ്രയോജനകരമായ രീതിയിൽ ഉള്ള ശ്രവിക്കുവാൻ സാധിക്കുന്നു അങ്ങനുള്ളതിനെ പ്രോത്സാഹിപ്പിക്കേം ഈ ചാനൽ ചർച്ചകളെ നമ്മൾ അവഹേളിക്കുക അതിനെ നമ്മൾ നിരുത്സാഹപ്പെടുത്താൻ തക്ക രീതിയിൽ നമ്മൾ അതിനെ ബഹിഷ്കരിക്കുക അങ്ങനൊക്കെ ചെയ്യാം അതാണ് എനിക്ക് താൽപര്യം ഓക്കേ